പൂക്കളിൻ്റെ ചെടികൾ ആണെങ്കിലും പച്ചക്കറികളിലെ ചെടികൾ ആണെങ്കിലും പഴങ്ങളുടെ ചെടികൾ ആണെങ്കിലും വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് പൂക്കളുടെ ചെടികളിൽ തൊന്നാണ് തുടങ്ങുന്നത് എല്ലാ ചെടികളും നമ്മൾ വളർത്തും പൂക്കളെയൊക്കെ നമ്മുടെ വീടിന് ഭംഗിയൊക്കെ വളർത്താൻ വേണ്ടി നമ്മള് പൂക്കളുടെ ചെടികള് വളർത്തുന്നുവെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ വീട്ടിൻ്റെ ആവശ്യത്തിനു വേണ്ടിട്ടാണ് നമ്മള് എന്ത് ചെയ്യുന്നത് പഴങ്ങളുടെ ചെടികളൊക്കെ വളർത്തുന്നത് നമ്മള് പ്ലാവും മാവും അതുപോലെ തന്നെ എന്താണ് വാഴ ഒക്കെ വച്ചു പിടിപ്പിക്കാറുണ്ട് പല തരത്തിലുള്ള പഴങ്ങളായിട്ടുള്ള സപ്പോട്ട റംബൂട്ടാൻ മാതളങ്ങ ചാമ്പക്ക നെല്ലിക്ക അങ്ങനെയുള്ള കുറേ പഴങ്ങളൊക്കെ നമ്മൾ വച്ചു പിടിപ്പിക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ പച്ചക്കറികൾ ആയാലും നമ്മൾ പച്ചക്കറി നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിന് നമ്മൾ പുറത്ത് പല തവണ കെമിക്കൽ അടിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതിനേക്കാൾ പുറമേ അതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ വീട്ടിൽ വച്ചു പിടിപ്പിക്കുന്നത് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടില് വച്ചു പിടിപ്പിക്കാറാണ് സാധാരണ പച്ചക്കറികൾ ഒക്കെ ചെയ്യാറുള്ളത് ആ പച്ചക്കറികളിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് വെണ്ടയ്ക്ക നമ്മൾ വെണ്ടയ്ക്ക വീട്ടിൽ വയ്ക്കാറുണ്ട് പിന്നെ എന്താണ് വെണ്ടയ്ക്ക വാഴയ്ക്ക വഴുതനങ്ങ തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള കുറേ അതൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാം എന്താണ് നമുക്ക് എല്ലാം നമുക്ക് ഉപകാരമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉപകാരമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ എന്ത് ചെയ്യും നമ്മൾ വീട്ടിൽ നല്ല രീതിയിൽ തന്നെ അത് വച്ച് പിടിപ്പിക്കാറാണ് നമ്മുടെ പതിവെന്ന് പറയുന്നത്